ഹലോ ഇത് ഹിൽ പാലസ് ഹോട്ടലല്ലേ എൻ്റെ പേര് ഭാവന എന്നാണ് ഞാൻ മങ്ങാട്ട് കരയിൽ നിന്നാണ് വിളിക്കുന്നത് ഞാനിതിന് മുന്നെ അവിടുന്നു പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് കൂപ്പൺ തന്നിരുന്നു അപ്പോൾ അടുത്ത പർച്ചേസിന് കൂപ്പൺ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനുള്ള ഫിഫ്റ്റി പെഴ്സെൻറ്റേജ് ഡിസ്കൗണ്ട് തരാമെന്നാണ് പറഞ്ഞിരുന്നത് ആ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കൂപ്പൺ ആ ഒരാഡെയ്തിട്ട് അതിൻറ്റെ ഡിസ്കൗണ്ടൊക്കെ എനിക്ക് തരാമോ ഫിഫ്റ്റി പെഴ്സെൻറ്റേജാ പറഞ്ഞിരുന്നത് ഓക്കേ അപ്പോൾ ഇനിപ്പം ഞാനടുത്ത പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ഡെലിവറി ബോയിയുടെ കയിൽ കൂപ്പൺ ഞാൻ കൊടുത്ത് വിടാം അല്ലെങ്കിൽ അടുത്ത പർച്ചേസ് ചെയ്തു കഴിയുമ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യില് കൂപ്പൺ റെഡീം ചെയ്തു തന്നാൽ മതി ആ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ